ആ എൻ്റെ പേര് ശുഭ എന്നാണെ ഞാൻ പവനാത്മ കോളേജിലെ എംപ്ലോയ് ആണ് അവിടുത്തെ സെക്യൂരിറ്റി അല്ലേ ആ ഞാനെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എൻ്റെയൊരു ബാഗ് ഞാനവിടെ വച്ചിട്ട് വന്നു വൈകുന്നേരം വരുമ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല അത് കോളേജിൽ തന്നെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് പറയാമോ ആ മറ്റേ നമ്മുടെ കാൻറ്റീൻല് ആ റൈറ്റ് സൈഡ്

ആ ഓക്കെ

ഒരു ബ്ലാക്ക് കളർ ഫുൾ ബ്ലാക്കാ

ആ ടേബിളിൻ്റെ സൈഡ് താഴെ ഒരു ചെറിയ ഗ്യാപ്പുണ്ടാവുമല്ലോ ആ ഗ്യാപ്പിൻ്റെ അവിടെയാണ് ഞാൻ വച്ചത്

ആ ഓക്കെ ആ ഉറപ്പ് തന്നെയാ ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പം ബാഗുമായിട്ടാ വന്നത് പിന്നത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് മീറ്റിംങ്ങുണ്ടായിരുന്നു അത് സോ ഞാൻ അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ബാഗെടുത്തില്ല പിന്നെ വൈകുന്നേരം ഞാൻ അങ്ങനെ തന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് അതാ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയത് ആ എൻ്റെ ഒരു പേഴ്സുണ്ട് പിന്നെ അല്ലാണ്ട് പിന്നെ കുറച്ച് പേപ്പെർസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പൈസ മിനിമം പോയാൽ എന്തായാലും ഒരു ടു ഒർ ത്രീ അങ്ങനെത്തെയൊരു സെറ്റപ്പാ ആ ആ മൂവായിരം ആ ആ ഒന്നു നോക്കണേ ആ ശരി ആണോ ഒന്ന് നോക്കാമോ സാറേ ആ സറൗണ്ടിങ് തന്നെ ഒന്ന് നോക്കാമോ കാൻറ്റീൻ്റെ അകത്ത് തന്നെ ആയിരിക്കും പുറത്ത് പോവാൻ ചാൻസില്ല

അല്ല അവിടെത്തന്നെ ബാഗ് ഞാൻ അവിടെത്തന്നെ വെച്ചേക്കുന്നതാ ഓ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ ഒന്ന് നോക്കാമോ

അല്ല ഞാൻ കാൻറ്റീൻന്ന് ആൾക്കാർനെ വിളിച്ചു ഞാൻ അന്വേഷിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരം പോവും എന്ന് അവർ കട അടക്കുന്നവരെ ആ ബാഗ് അവിടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്

ആ ഒന്ന് നോക്കണേ ആ അതെ

അതിൽ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാമോ ആരെങ്കിലും എന്തെങ്കിലും തുറന്ന് നോക്കിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാമോ

പിന്നെ കുറച്ച് പേപ്പേർസൊക്കെ ഉണ്ടായിരുന്നു അത് ഉണ്ടോ എന്ന് നോക്കാമോ ആ പഠിപ്പിക്കുന്ന പേപ്പറും പിന്നെ ഒരു ഡോക്കുമെൻറ്റുണ്ടാവും പിന്നെ അല്ലാണ്ട് കുറച്ച് പിള്ളേരുടെ പേപ്പേഴ്സുണ്ടാവും അതിൽ കറക്റ്റ് ചെയ്ത പേപ്പേഴ്സും ആ ഓക്കെ എന്നാൽ നാളെ രാവിലെ ഞാൻ വന്നിട്ട് ആ അതുമാത്രമേ ഉള്ളൂ ഞാൻ എന്നാൽ നാളെ രാവിലെ വന്നിട്ട് ഞാൻ സാധനങ്ങൾ കയ്യിൽനിന്ന് എടുത്തോളാം ഓക്കെ ആ ഓക്കെ താങ്ക് യൂ